എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ലക്ഷത്തി അൻപത്ത് ഏഴയിരത്തി നാഞ്ഞൂറ്റി മുപ്പത്തി നാല് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അമ്പതിനായിരത്തി ഇരുപത്തി ഏഴ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ്